യെസ് വയനാട്ടിലെ ട്രെക്കിങ്ങ് ഗൈഡായിരുന്നു ആ ഓക്കെ സാർ പറഞ്ഞോളൂ ഞാൻ വയനാട്ടിൽ ട്രെക്കിങ്ങിനെന്ന് പറഞ്ഞാൽ കുറുംബാലകോട്ട തൊള്ളായിരം കണ്ടി പിന്നെ ചെതലയം വാട്ടർ ഫാൾസ് അങ്ങനെ കുറെ പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ട് സാർ ചേകാടി ഒരു ഫോറസ്റ്റിനകത്ത് കൂടെ ഇതുണ്ട് ജീപ്പ് സഫാരി ഉണ്ട് സാർ നമ്മൾ കൂടുതലും നമ്മൾ ഫോർ ഇന്റു ഫോർ ജീപ്പുകൾ ഇതായിരിക്കും അല്ലാണ്ട് ബൈക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ ബൈക്കിവിടെ ഇത് ചെയ്യുന്നുണ്ട് ഫൂഡൊക്കെ ഉണ്ട് ആവശ്യം ഇല്ല സാർ ഫൂഡ് സാറിന് ഇവിടെ സാറ് നിൽക്കുന്നത് എവിടെയാണോ അവിടെ നമ്മളെത്തിക്കും സാറിൻ്റെ സ്റ്റേ അടക്കം എല്ലാം ഉള്ളതാണ് അപ്പോൾ കുറുമ്പാലക്കോട്ട പറയുകയാണേൽ തന്നെ മാനന്തവാടി വെളുമ്പുകണ്ടം അപ്പറെയാണ് കുറുംമ്പാലക്കോട്ട ഈ മോർണിങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൺ സെറ്റടക്കം എല്ലാം കാണാം അവിടെ കയറണം നമ്മൾ ഇപ്പം താഴേന്ന് മുകളിലേക്ക് ഒരു ഏഴ് കിലോമീറ്ററുണ്ട് ആ ഏഴ് കിലോമീറ്ററുണ്ട് ജീപ്പ് സഫാരി നടന്ന് കയറേണ്ടവർക്ക് നടന്ന് കയറാം ജീപ്പ് സഫാരി ഉണ്ട് ബൈക്ക് കുറച്ച് ഡേയ്ഞ്ചറാണ് എന്നാലും ജീപ്പ് സഫാരി നമുക്ക് കുറച്ചും കൂടെ ഇതാണ് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് തൊള്ളായിരം കണ്ടി സാർ തൊള്ളായിരം കണ്ടി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് തൊള്ളായിരം കണ്ടി നമുക്കൊരു മൂന്ന് കിലോമീറ്ററ് നാല് കിലോമീറ്ററ് നടന്ന് കയറേണ്ടി വരും സാർ അത് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട് സാർ ട്രെക്കിങ്ങ് ഉണ്ട് ആ ബൈക്ക് നമുക്ക് അലൗഡാണ് ആ പിന്നെ സാറിന് സ്റ്റേ ചെയ്യുന്നതിന് നമുക്ക് പുൽപള്ളി കാട്ടിൽ ഫോറസ്റ്റിനകത്തൊരു ഇതുണ്ട് റിസോർട്ടുണ്ട് നല്ല ആമ്പിയൻസാണ് നമ്മൾ ഇപ്പോൾ എന്താ ഇൻറ്റർലോക്കിൻ്റെ ഒരു ഇതില്ലേ കാടിന് അകത്ത് കൂടെ ഉള്ള അതിലൂടെ പോകുന്ന ഒരിതാണ് ഫുഡ് നമുക്കിവിടെ ചെയ്യാം ഫുഡ് നമുക്ക് വേണേൽ അവിടെ സ്റ്റേ ചെയ്ത് ചെയ്യാം ക്യാമ്പ് ഫയറൊക്കെ അടിച്ച് ചെയ്യാം ഒരു തൊള്ളായിരം കണ്ടി വരുന്നെങ്കിൽ സാർ നമുക്കൊരു വെളുപ്പിന് നാല് മണിക്ക് പോകണം ആ എന്നാലെ സൺ സെറ്റടക്കം നമുക്ക് കാണാൻ പറ്റുകയുള്ളു ഓ സാർ വയനാട്ടിൽ വയനാട്ടിൽ വയനാട് കയറുമ്പം സാറ് വിളിച്ചാൽ മതി നമ്മുടെ ആൾക്കാർ വന്ന് സാറിനെ കൂട്ടിക്കോളും ഓക്കെ സാറപ്പോൾ വയനാട്ടിലെത്തുമ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക താങ്ക്യൂ സാർ